ഹലോ അർഫ ഹോട്ടൽ അല്ലേ രാമൻകുളത്തേക്ക് ഒരു ഒഡറ് ചെയ്താൽ എത്ര സമയമെടുക്കും ഇവിടെ എത്താൻ നാൽപ്പത് മിനിറ്റ് എടുക്കുമോ ഒരു പത്ത് ഇരുപത്തി അഞ്ച് മിനുട്ടിനുള്ളിലാണെങ്കിൽ ഒരു ഓർഡറ് ഒരു ഓർഡറുണ്ടായിരുന്നു ചെയ്യാൻ ഒരു നാലു ബിരിയാണിയിം പിന്നേ തൈരും അച്ചാറും ചമ്മന്തീം ഒരു നാല് ജൂസും ബിരിയാണിക്ക് ഒന്നിന് എത്ര രൂപ ആകും അല്ലേ അത്ര പൈസ വരെയാവൂലെ നൂറ്റി നാൽപ്പത് ആണെന്നുണ്ടെങ്കിൽ ആ നാല് ബിരിയാണിയും പിന്നെ തൈര് അച്ചാറും ചമ്മന്തീം പിന്നെ നാല് ജൂസ്സും ജൂസ് ഏതൊക്കെയുണ്ട് ആപ്പിളും മുന്തിരിയും ഒരു നാലു മുന്തിരി ജൂസും ഓഡർ ചെയ്യണം രാമങ്കുളത്താണ് വീട് ഒരു പത്ത് ഇരുപത്തി അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ആണെന്നുണ്ടെങ്കിൽ ഓഡർ എടുത്താൽ മതി പൈസ വീട്ടിൽ വന്നിട്ട് കൊടുത്താൽ പോരെ പെട്ടെന്ന് എത്തിക്കണം